സ്റ്റാമ്പുകൾ അതു പോലെ നാണയങ്ങൾ കല്ലുകൾ ഇവയൊക്കെ ശേഖരിക്കുന്നത് ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് ആദ്യ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളല്ല ഇപ്പോഴത്തെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്

അന്നാദ്യത്തെ അഞ്ച് പൈസക്കൊക്കെ എന്താ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കും എന്താ ഒക്കെ ചെയ്തിരുന്നതാണ് ഇരുപത്തഞ്ച് രൂപക്ക് നേരൊരു മിഠായി പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ എന്തു കൊണ്ട് ഇപ്പം ഉപകാരങ്ങളൊന്നും ഇല്ല പക്ഷേ ആദ്യത്തെ നാണയങ്ങൾ ഒക്കെ ഉപയോഗിച്ച് എന്താ സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് എന്താ ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് എന്താ ആദ്യത്തെ കാലങ്ങൾ ഓർത്ത് വെക്കാനും ഇനി എന്താ വരുന്ന ആൾക്കാർക്ക് എന്താ ആദ്യത്തെ നാണയങ്ങൾ പരിചയപ്പെടുത്താനും അവരധക്ഷേപിക്കാനൊക്കെ അവർക്കിതൊക്കെ ഒരു അത്ഭുതങ്ങളായിട്ടേക്കരം എന്താ അവർക്ക് തോന്നുന്നുണ്ടാകുക ഇത്ര രൂപക്ക് ഇത്ര നാണയം കൊണ്ട് ഇത്രയും സാധനങ്ങൾ കിട്ടിയെന്ന് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നല്ല അത്ഭുതകരമായിട്ടൊക്കെയുണ്ടാകാം കാരണം ഇനി വരുന്നതിൽ എന്താ ഇതിലും വലിയ രൂപ കൊടുത്താലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുകളേ ഉണ്ടാകുള്ളൂ അതേപോലെ തന്നെയാണ് എന്താ ഇനി വരുന്ന എന്താ അങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളുടെ ടീച്ചർ ആവുകയാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും എന്താ അവരെ എന്താ ജയിപ്പിക്കാനും മുൻകാലങ്ങളിൽ ഓരോ എന്താ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാനും ഒക്കെ എന്താ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഇങ്ങനെ ശേഖരിച്ചു വെക്കൽ അത് എന്താവണെങ്കിലും സ്റ്റാമ്പാണെങ്കിലും കല്ലാണെങ്കിലും എന്താ അതുപോലെ നാണയങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് അതുപോലെതന്നെ കല്ലുകൾ ആദ്യ കാലത്ത് ഓരോ പ്രതിമകളുണ്ടാകും അപ്പോൾ എന്താ ആദ്യ കാലത്ത് ഒരു മനുഷ്യന്മാർ ഓരോ കുഴിച്ചി എന്താ എന്താ മൂടി വെച്ചിട്ടുണ്ടാകും അപ്പം അതൊക്കെ എന്താ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്താ അങ്ങനെ പണമായിട്ടും പണം സമ്പാദിക്കാനും എന്താ കല്ലുകൾ അതേ പോലെ എന്താ ബിംബങ്ങൾ അങ്ങനെ തുടങ്ങി ഓരോന്നും ഇപ്പോഴത്തെ കാലത്ത് ആദ്യ കാലത്ത് കിട്ടിയാൽ ഈ കാലത്തത് വളരെ ഉപകാരമുള്ള കാര്യമാണ് എന്താ പണം സമ്പാദിക്കാൻ അതേപോലെ പ്രദർശനത്തിന് ഇങ്ങനെ ഒരുപാട് കാര്യത്തിന് എന്താ വ്യാപാരത്തിന് വിൽപ്പനക്ക് ഒക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പം അതേപോലെ എന്താ ആദ്യത്തെ കാലത്ത് എന്താങ്ങനെ സ്റ്റാമ്പ് നാണയങ്ങൾ കല്ലുകളൊക്കെ ശേഖരിച്ചു വെക്കുന്നതു കൊണ്ട് വിദ്യാഭ്യാസ തലത്തിലും എന്താ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിലാകുമ്പോൾ അത് പ്രത്യേകിച്ച് അത് ഒരു ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും എന്താ ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്താ ഇങ്ങനെയുള്ള ആദ്യകാല ഉപകരണങ്ങളൊക്കെ എന്താ ശേഖരിച്ച് വെക്കും